ടാപ്പുവെള്ളം ലഭിക്കാറുണ്ട് ടാപ്പുവെള്ളം പറയുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് വെള്ളം ലഭിക്കാറുണ്ട് നമുക്കിപ്പോൾ വീട്ടില് ഇത്ര മണി തൊട്ട് ഇത്ര മണിവരെ വന്നിട്ടാണ് ഇപ്പോൾ വെള്ളം ലഭിക്കണത് അതേപോലെ ഇപ്പോൾ സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിപ്രകാരം നമുക്ക് ജലനിധി പറയണ ഒരു പദ്ധതി പ്രകാരം നമുക്ക് എപ്പഴും വെള്ളം കിട്ടും അപ്പോൾ വെള്ളം കിട്ടുന്നോണ്ടുതന്നെ നമുക്കാ വെള്ളത്തിൻ്റെ ക്യാഷ് മാത്രം പേ ചെയ്താൽ മതി എത്ര വെള്ളം നമ്മൾ യൂസെയുന്നോ ആ വെള്ളത്തിൻ്റെ ക്യാഷ് മാത്രം നമുക്ക് വെള്ളം അൺലിമിറ്റഡായി കിട്ടിക്കൊണ്ടിരിക്കും അയിനുള്ള പൈപ്പ് ഇപ്പോൾ നിലവില് ഇട്ടു വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പഞ്ചായത്തടിസ്ഥാനത്തില് എല്ലാ വീട്ടിലും വെള്ളം രാവിലെ ഒരു അര മണിക്കൂറ് വൈകിട്ട് അര മണിക്കൂറ് അങ്ങനെ ഒരുമണിക്കൂറ് എല്ലാ ദിവസം ടാപ്പ് വെള്ളം കിട്ടുന്നുണ്ട് ടാപ്പുവെള്ളം ബോറിലെ വെള്ളമാണ് നല്ല വെള്ളം തന്നെയാണ് നമുക്ക് കുടിക്കാനും അതേപോലെ യൂസിനൊക്കെ നമുക്ക് പാചകത്തിനൊക്കെ പറ്റിയ വെള്ളൊന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല വെള്ളന്നെയാണ് നമുക്ക് കിട്ടണ്